എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളെ പകർത്തുക എന്നതാണ് ഞാനൊരു ചിത്ര രചനയോട് മനസിലാക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ബുക്കുകളിൽ നിന്നും കിട്ടുന്ന ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് അത് എന്റേതായ രീതിയില് കൂട്ടിച്ചേർത്ത് മാറ്റി വരയ്ക്കുക എന്നതാണ് ഞാന് ചെയ്യാറുള്ളത് പിന്നെ ചിത്രങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയും പിന്നെ അത് കടലാസിലേക്ക് മാറ്റുമ്പള് അത് എത്ര രസമായിട്ടാണ് ഉണ്ടാവുക അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ പോരായ്മകളാണ് ഉണ്ടാവുന്നത് എന്ന് എനിക്കറിയാൻ കഴിയാറുണ്ട് പിന്നെ എനിക്ക് കൂടുതലും പ്രകൃതികളുമായിട്ട് ഇണങ്ങിയ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനാണ് ഇഷ്ടം പിന്നെ ഓരോ ചിത്രം കാണുമ്പളും അതിന് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്തൊക്കെ ഉൾപ്പെടുത്തണ്ട എന്നതൊക്കെ എനിക്കറിയാൻ കഴിയലുണ്ട് ഞാൻ കുറെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് ചില ചിത്രങ്ങളെനിക്കിഷ്ടപ്പെടും അതുപോലെ തന്നെ ഇഷ്ടപെടാത്ത ചിത്രങ്ങളക്ക്ണ്ട് ചിത്രം വരച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു സന്തോഷമാണ് എനിക്ക് ചിത്ര രചനയിലൂടെ ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അതില് കുറെ വർണ്ണങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെതായ രസങ്ങളിങ്ങനെ കൂടി വരും പിന്നെ ആളുകള് നമുക്ക് തരുന്ന സഹായങ്ങളും അതുപോലെ തന്നെ അവര് പറയുന്ന ഓരോ സന്ദേശങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഞാന് ഒര് ചിത്രം രൂപപ്പെടുത്താറുള്ളത്